എൻ്റെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് എന്ന് പറയുന്നത് പന്ത്രണ്ട് സെക്കൻഡ് പോയിൻറ് ഫൈവ്

ദിവസവും ഓടുന്നത് കുട്ടികളിലൂടെ മിക്ക എല്ലാ ദിവസവും തന്നെ ഓടാറുണ്ട് അത് രാവിലെയും വൈന്നേ രാവിലെ ഉച്ച വരേയുള്ള ടൈം അല്ലെങ്കിൽ ഒന്നുകിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിൽ അല്ലെങ്കിൽ രാവിലെ അത് കുറേ സമയം കുട്ടികൾക്ക് പരിശീലനം നട് ന നൽക്കുമ്പോൾ അത് നന്നായിട്ട് ഒരു മണിക്കൂറോളം പരിശീലനമുണ്ട് ആ പരിശീലനത്തിൽ എത്ര സമയം ഓടാമോ അത്രയും സമയം ഓടാം ഓടാനായിട്ട് ശ്രമിക്കാറുണ്ട് ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളെ ഏറ്റവും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് അവരെ എത്രമാത്രം അവരുടെ കപ്പാസിറ്റി ഓടി അല്ലെങ്കിൽ അവർക്ക് അവരെ ഫസ്റ്റ് വാങ്ങിപ്പിക്കാമോ എത്ര മാത്രം അവർക്ക് പെർഫോമൻസ് നേടി എടുക്കാൻ പറ്റുമോ അത്രയും പെർഫോമൻസ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അവർക്ക് ഉജ്യ ഉയർന്ന വിജയം കരസ്ഥമാക്കുക അതാണ് അതുകൊണ്ടുള്ള ഒരു നേട്ടം അപ്പം അവരെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളും ആക്കുക ഏറ്റവും നല്ല കായിക ത് മത്സരങ്ങളിൽ അവർക്ക് ഉയർന്ന സ്ഥാനം കിട്ടുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ് നടത്താറുള്ളത്